നെയ്ത്തിലും തുന്നലിലും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചാനലുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഉണ്ട് ഒന്നില്ല ഒന്നിലേറെ യൂട്യൂബ് ചാനലുകൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഓരോരോ വ്യക്തികൾ ഇവയിൽ ഇവരെയൊക്കെ ഞാനൊരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇവരെയെല്ലാം ഞാൻ ഫോളോയും ചെയ്യുന്നുണ്ട് ഇവർ ഇവർ കൊണ്ടുവരുന്ന പുതിയ പുതിയ മോഡലുകൾ തുന്നലുകൾ ഡിസൈനുകൾ ഇവയെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇവയിൽ നിന്നെല്ലാം ഞാനൊരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പുതിയ പുതിയ ട്രെൻഡുകൾ ട്രെഡുകൾക്കനുസരിച്ച് കളറുകൾ കളറെങ്ങനെ ഡിസൈൻ ചൂസ് ചെയ്യാമെന്നും ഓരോരോ ഫാബിക്ക് ഫാബ്രിക്കിൽ ഏതെല്ലാം കളേഴ്സ് കൊണ്ടുവരാം ഏതെല്ലാം കളേഴ്സിൽ എങ്ങനെയെല്ലാം ഡിസൈൻ ചെയ്യാം എന്നൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഈ ഇന്നത്തെക്കാലത്തെ എല്ലാവരുടെ ജീവിതത്തിലും അവരുടെ പാഷനുകളിൽ പാഷനുകൾ മുന്നോട്ടുകൊണ്ടുപോവാൻ സോഷ്യൽ മീഡിയ വളരെയേറെ സാന്നിധ്യം ചെലുത്തുന്നുണ്ട് എൻ്റെ കഴിവുകൾ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുന്നതും തീർച്ചയായും സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് മറ്റു വാട്സ്പ്പ് സ്റ്റാറ്റസുകൾ എന്നിവയിലൂടെ എല്ലാം ഞാൻ എൻ്റെ കഴിവുകൾ സമൂഹത്തിൽ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ചാനലുകൾ എന്നതിനേക്കാളുപരി ഈ ഓരോരോ വ്യക്തിയുടെ ഓരോരോ അക്കൗണ്ടുകളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഓരോ ഒരാളിൽ നിന്ന് മാത്രമല്ല ഒരുപാട് ഇൻഫ്ലുവൻസേസ് സോഷ്യൽ മീഡിയ മറ്റു താരങ്ങളിൽ നിന്നെല്ലാം തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് നമുക്കിഷ്ടം ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ആ കളേർസ് ഏതാണെന്നും ഓരോരുത്തർ ഓരോ കളേർസ് ചൂസ് ചെയ്യുമ്പം അതിലേക്ക് ആപ്റ്റായിട്ടുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്യാനൊക്കെ സോഷ്യൽ മീഡിയ ഒരുപാടേറെ പങ്കുചെലുത്തുന്നുണ്ട് ഞാൻ എൻ്റെ കഴിവും എൻ്റെ അറിവുകളും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ഫീൽഡിൽ നിന്ന് ഫീൽഡ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഞാനും സോഷ്യൽ മീഡിയ തന്നെയാണ് ഓഹ് ചൂസ് ചെയ്യുന്നത് മറ്റുള്ളവരിലേക്കത് എത്തിക്കാൻ വേണ്ടി ഇന്ന് വീട്ടിൽ നിന്ന് നിന്നുകൊണ്ടുതന്നെ നമ്മുടെ റൂമിൽ നിന്നുകൊണ്ടുതന്നെ മറ്റുള്ളവരിലേക്ക് നമുക്ക് നമ്മുടെ കഴിവുകൾ എത്തിക്കാൻ കഴിവ് എത്തിക്കാൻ സോഷ്യൽ മീഡിയയിനേക്കാൾ വലിയ വേറൊരു ഫ്ലാറ്റ്ഫോം ഇന്നിവിടെയില്ല